നമ്മുടെ ഈ പ്രദേശത്ത് ആഘോഷിക്കുന്ന മതപരമായ ഉത്സവങ്ങൾ തിരുനാളുകളാണ് തിരുനാളുകൾ ഇടവക തിരുനാൾ മറ്റു വിശുദ്ധന്മാരുടെ തിരുന്നാളുകൾ കൂടാതെ അക്രൈസ്തവരായ ആളുകളുടെ ഹിന്ദുക്കൾ അവരുടെ ഉത്സവങ്ങൾ ദേവി ക്ഷേത്രങ്ങളിലെ ദേവിയെ സ്തുതിക്കുന്ന ഉത്സവങ്ങളുണ്ട് അതിൽ നാലും അഞ്ചും ദിവസങ്ങൾ അവരുടെ തുടർച്ചയായി അവരുടെ അവരുടെ പിന്നെ രാമായണം വായിക്കുകയും അതിൽ മനുഷ്യൻ മറ്റുള്ളവർക്ക് അത് വിവരിച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ക്രിസ്ത്യാനികളായ നമുക്ക് നമ്മുടെ തിരുന്നാളുകൾ വിശുദ്ധന്മാരുടെ തിരുന്നാളുകൾ ഓരോ പള്ളികളിലും ഓരോ വിശുദ്ധന്മാരുടെ രീതിയിൽ പരിശുദ്ധന്മാരുടെ തിരുനാളുകൾ ആഘോഷിക്കുന്നുണ്ട് കൂടാതെ മറ്റു മറ്റ് മറ്റു മറ്റു പുണ്യവാന്മാരുടെ പെരുന്നാളുകളും ആഘോഷിക്കുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ അടുത്ത തീർത്ഥാടന കേന്ദ്രമായ എടത്വാ പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാൾ ആഘോഷമായിട്ട് നടത്തുന്നുണ്ട് അവിടെ ഈ വർഷം പതിനാല് ദിവസത്തെ തിരുനാളാണ് നടത്തുന്നത് അത് തമിഴ്നാട്ടിൽ നിന്ന് കൂടുതൽ തീർത്ഥാടകർ വന്ന് അതിൽ പങ്കെടുക്കുന്നു